പാലക്കാട് ജില്ലയിൽ ആഘോഷിക്കുന്ന ഒരുപാട് ഉത്സവങ്ങളും പരിപാടികളൊക്കെയുണ്ട് അവിടെ മതത്തിന്റെ ബേസിൽ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ നമ്മളെ ഉള്ളിലത് നമ്മളുടെ അന്തർദേശീയ തലത്തിലൊക്കെയാണെങ്കിൽ ഒരുപാട് മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ സാധാരണയായിട്ടും ഉത്സവങ്ങളൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ ഓരോ ദേവികളുടേയും ദേവന്മാരുടേയും എഴുന്നള്ളിപ്പിനൊക്കെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ എന്താണ് നമ്മുടെ ഐശ്വര്യത്തിന്റേയൊക്കെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കുറെ ഉത്സവങ്ങളൊക്കെ നടത്താറുണ്ട് ഓരോ അമ്പലങ്ങളും ചെറിയ ചെറിയ അമ്പലങ്ങൾ തൊട്ട് വലിയ വലിയ അമ്പലങ്ങൾ വരെ പിന്നെ വലിയ രീതിയിലാണ് ഉത്സവങ്ങൾ നടത്തിവരാറുള്ളത് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്നു പറയാൻ എല്ലാം പ്രധാനപ്പെട്ടതാണ് വലിയ വലിയ ഒരുപാട് ആനകളെ നിരത്തുക അതുപോലത്തന്നെ എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യം കുടമാറ്റം അങ്ങനുള്ള ഒരുപാട് ഇതൊക്കെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ചെയ്യാറുണ്ട് സാധാരണയായിട്ട് ഈ കൊയ്ത്തുകാലമൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ഒരു മാർച്ച് ആ മാർച്ച് ജനുവരി അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവിടേയും ഉത്സവങ്ങളുടെയൊക്കെ സമയായിരിക്കും എപ്പോഴും ആഘോഷവും ഇതൊക്കെയായിരിക്കും ആഘോഷവേളയിൽ നമ്മൾ എന്താണ് നോൺവെജൊന്നും നമ്മളങ്ങനെ നോൺവെജാണ് നോൺവെജൊന്നും കഴിക്കില്ല വെജിറ്റേറിയൻ ഫുഡ്ഡുകളൊക്കെ കഴിക്കും ചില സമയങ്ങളിൽ നമുക്കിപ്പോൾ നമ്മൾ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ്ഡൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ എന്താണെന്നു വെച്ചാൽ ചില സമയം പെരുന്നാളൊക്കെ വരാറുണ്ട് പെരുന്നാളൊക്കെ വരുന്ന സമയത്താണ് എന്താണ് അവർക്ക് വേണ്ടിയിട്ട് നല്ല ബിരിയാണികളൊക്കെ ഉണ്ടാക്കി ബിരിയാണി മുസ്ലീങ്ങളുടെ ആഘോഷമാണ് പ്രധാനമായിട്ടുള്ള ആഘോഷമാണ് ഈ എന്താണ് റംസാനൊക്കെ പറയണത് റംസാൻ അപ്പോൾ ആ റംസാനൊക്കെ അവർ അവരുടെ ഫുഡ്ഡെന്നു പറയണതുതന്നെ എന്താണ് ബിരിയാണി ഉണ്ടാക്കുക എന്നാണ് അവരുടെ ബിരിയാണിയൊക്കെ അടിപൊളി ബിരിയാണിയാണ് അപ്പോൾ നല്ല ആഘോഷമായിരിക്കും അവിടിങ്ങനെ പുത്തൻ പുതിയ പുതിയ ഡ്രെസ്സൊക്കെയിട്ട് എല്ലാവരേയും വിളിച്ചുകൂട്ടി അവർ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടാകും